ഭാവിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് അതിനുള്ള പ്രോത്സാഹനം നൽകുക നല്ല നല്ല കൂടുതൽ കൂടുതൽ ഭാഷയെ സ്നേഹിക്കുക മലയാള ഭാഷയെ ബുക്കുകൾ കൂടുതൽ പ്രസിദ്ധീകരിക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുക നമ്മുടെ മാതൃഭാഷയെ മലയാളത്തിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അപ്പോൾ അത് മറ്റുള്ള വാ അന്യ സംസ്ഥാനങ്ങളിലേക്കും നമ്മുടെ ഭാഷയെ എന്താണ് പറയുക നമ്മുടെ ഭാഷയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലും നമ്മുടെ ഭാഷയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മുടെ ഭാഷയെ കുറിച്ച് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും